വയനാട് ജില്ലയിലെ ആളുകൾ നിത്യേന നേരിടുന്ന പൊതുവായ ഒരു വെല്ലുവിളി ഒരു പ്രശ്നമാണ് വന്യമൃഗ ശല്യം ഇന്ന് എല്ലാ രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ വന്യമൃഗങ്ങൾ ഇറങ്ങാണ് നാട്ടിലേക്ക് കൃഷിയിടങ്ങൾ പച്ചക്കറികൾ എല്ലാംതന്നെ നശിപ്പിക്കുന്നു ഇവർക്കൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു മുക്കാൽ ഭാഗവും ആന വന്ന് നശിപ്പിക്കുകയാണ് അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ കാണുന്നത് പിന്നെ നേതാക്കളിൽ നിന്നു ലഭിക്കുന്നതെന്ന് വെച്ചാൽ അവര് ഓരോരുത്തരും ഓരോ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത് പാർട്ടി ഏതു പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയിലെ അംഗങ്ങൾക്ക് മാത്രമാണ് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഗതാഗത മാർഗം ചില സ്ഥലങ്ങളിലെല്ലാം കുഴപ്പമില്ല എന്നാലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇന്നും റോഡുകൾ ഒന്നും നല്ല രീതിയിലല്ല ഉള്ളത് കുണ്ടും കുഴിയും നിറഞ്ഞതുമൊക്കെയാണ് കുറേയൊക്കെ നന്നാക്കാനുണ്ട് അടിസ്ഥാനസൗകര്യങ്ങൾ വളരേ കുറവാണ് ഒരു ഹോസ്പ്പിറ്റലായാലും എല്ലാ കാര്യത്തിനും അടിസ്ഥാന സൗകര്യം കുറവാണ് പോഷകാഹാരക്കുറവ് ഇപ്പം വയനാട് ജില്ലാന്നു പറയുമ്പോൾ ഒരു ആദിവാസി വിഭാഗമാണ് നമ്മുടെ മനസിലേക്ക് എപ്പഴും വരുന്നത് അംഗസംഖ്യ കൂടുതലാണവർക്ക് അങ്ങനെതന്നെ പോഷകാഹാരക്കുറവ് എല്ലാവർക്കും കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അപാകത അവരുടെ വീട് ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ തന്നെ പുഴ സൈഡിലാണെങ്കിൽ വെള്ളം കയറുന്നു അവരെ മാറ്റിപാർപ്പിക്കുന്നത് പിന്നെ ക്യാമ്പുകളിലേക്കാണ് അവർക്കൊരു നല്ലൊരു വീട് അവരെയൊന്നു മാറ്റിപാർപ്പിക്കുക അങ്ങനത്തൊരു സൗകര്യമൊക്കെ ഉണ്ടാക്കുക പിന്നെ ഏറ്റവും കൂടുതലായി കാണുന്നത് തൊഴിലില്ലായ്മയാണ് തൊഴിലവസരങ്ങൾ ഇവിടെ ഒട്ടുമില്ല ഒരുപാടുപേര് ഒരുപാടുപേര് പഠനം കഴിഞ്ഞു വെറുതേ നിക്കുകയാണ് തൊഴിലില്ലാതെ ഇപ്പം ബീ ഇറ്റ് ഫോറസ്റ്റ് പോലീസ് അതെല്ലാം ഓരോ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രകാരം എസ്റ്റികൾക്കു മാത്രമായിട്ടു കൊടുക്കുന്നുണ്ട് അല്ലാത്ത ആൾകാർക്കില്ല ഓരോരുത്തരും ജോലികിട്ടുമെന്ന ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് തൊഴിലവസരങ്ങൾ ഒട്ടുംതന്നെ വയനാട് ജില്ലയിലില്ല